വിദേശസഞ്ചാരികൾക്ക് നമുക്ക് മൈസൂര് കാണിച്ച് കൊട് മൈസൂരെന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ പ്രകൃതി എത്ര പ്രകൃതി എത്ര രസമാണെന്ന് നമുക്ക് കാണിച്ചാല് പൂന്തോട്ടവും സൂര്യകാന്തി തോട്ടവുമൊക്കെ നമുക്ക് കാണിച്ച് സൂ മൈസൂരില് വലിയ സൂ ഉണ്ട് അത് നമുക്ക് പോയി സന്ദർശിക്കാം പിന്നെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മറ്റേ സോറി അങ്ങനെ വരികയാണെങ്കിൽ മിനി ഓട്ടി മിനി ഊട്ടിയാണ് ഊട്ടിയുടെ ചെറിയ വേർഷൻ അവിടെ പോയാൽ തണുപ്പും മഞ്ഞു കാറ്റ് എന്തൊക്കെയാണ് നമുക്ക് നല്ല വ്യക്തമായി കാണിച്ച് കൊടുക്കാം പിന്നെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമെന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത എത്രത്തോള്ളം ഉണ്ടെന്ന് നമുക്കതിലൂടെ കാണിച്ച് ഇതൊക്കെ തന്നെയാണ് നമുക്കേറ്റവും അനുജ്യമായ ക അനുയോജ്യമായിട്ടുള്ളത് കാണിച്ച് കൊടുക്കാന് പിന്നെ ഉള്ളത് ഓരോ ബോട്ടിങ്ങിൻ്റെ സ്ഥലം അതൊക്കെ പിന്നവർക്ക് വലിയ ഇതൊന്നും ഇല്ലെങ്കിലും അവിടെ എന്നാലും നമുക്ക് കാണിച്ചുകൊടുക്കാം മലകളും നിരകളുവൊക്കെ കാണിച്ചുകൊടുക്കാം പുഴകള് പിന്നേ വെള്ളം തോ വെള്ള മത്സരം ഒക്കെ ഉണ്ട് അതൊക്കെയാണ് അവർക്ക് മെയിനായിട്ട് കാണണ്ടത് അത് നമുക്ക് കാണിച്ച് കൊടുക്കാം പിന്നെ ഇവിടുത്തെ ഓരോ റെസ്റ്റോറൻട് അവിടുത്തെ ഫുഡ് കേരളീയ ഫുഡ്ഡിൻ്റെ ഇതൊക്കെ കാണിച്ചുകൊടുക്കാം മൃഗശാലയുണ്ട് എത്രത്തോള്ളം കുറെ മൃഗശാലയുണ്ട് അതിൽ എന്തെങ്കിലും നമുക്ക് കാണിച്ച മൈസൂരിലാണ് വലിയ മൃഗശാല ഉള്ളത് അത് നമുക്ക് കാണിച്ച് കൊടുക്കാം പിന്നെ പൂന്തോട്ടം ഒക്കെ നമുക്ക് കാണിച്ച് കൊടുക്കാം